ഹലോ ആ ജനേഷ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റായിരുന്നു ആരായിരുന്നു വാഷിംഗ് മെഷീനാ ആ വാഷിംഗ് മെഷീന് നമുക്കിപ്പോൾ ഓഫർ വരുന്നുണ്ട് ഇ എം ഐ ആയിട്ടാണോ ഇ എം ഐ ആയിട്ടാണോ എടുക്കുന്നത് ഇ എം ഐ ആയിട്ടെടുക്കാനാ ആ ഓക്കേ അപ്പോൾ വാഷിംഗ് മെഷീൻ ഏതാണ് ഓട്ടോമാറ്റിക് ആണോ സെമി ഓട്ടോമാറ്റിക് ഏതാ വേണ്ടത് ഫുള്ളി ഓട്ടോമാറ്റിക്കാ അതിന് ശരിക്കുള്ള റേറ്റെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് നാന്നൂറാണ് വരുന്നത് നമുക്ക് ഓഫറ് പ്രകാരം കമ്പനി എൽ ജീൻറ്റെയുണ്ട് സാംസങ്ങിൻറ്റെ ഉണ്ട് ഏതാണ് വേണ്ടത് എൽ ജീൻ്റെ ആണെങ്കിൽ ഇരുപത്തി രണ്ട് നാന്നൂറാണ് വരുന്നത് അതിന് പതിനേഴ് മുന്നൂറായിട്ട് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഓണത്തിൻ്റെ ഓഫറിൽ ആ ഓണത്തിൻ്റെ ഓഫറാണ് പിന്നെ അതിൻറ്റെ കൂടൊരു ഇസ്തിരിപെട്ടി ഫ്രീ ഉണ്ടാവും ആ പിന്നെ വേറെന്തെങ്കിലും വേണോ അത് ഇപ്പോൾ ഇവിടെവന്ന് നിങ്ങൾക്ക് നോക്കീട്ട് ഏതാ നോക്കീട്ട് ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ് എടുക്കാം അല്ലെങ്കിൽ ടി വിക്ക് എത്ര ഇഞ്ചിൻറ്റെയാണ് വേണ്ടത് ഫിഫ്റ്റി ടുവാ ഏതാ എൽ ജിൻറ്റെ ആണോ എൽ ജിൻറ്റെ ആണെങ്കിൽ കുറച്ചു കൂടെ റേറ്റ് കൂടുതലായിരിക്കും ഓരോ ടിവിക്കും ഓരോ റേറ്റാണ് ഇതിപ്പോൾ അങ്ങനെ അതിന് കുറച്ച് ലേശം താഴെയായിരിക്കും ആ സോണീൻറ്റെ ഉണ്ട് സോണീൻറ്റെ ഉണ്ട് സോണീൻറ്റേന് സോണീൻറ്റേന് അറുപത് നാല് ചില്ലറ വരും ആ ഇ എം ഐൽ ആ അത് ഇ എം ഐൽ ചെയ്യാം അത് ഇവിടെന്ന് നമുക്ക് ഒരു കാർഡ് എടുത്താമതി മൂന്നൂറൂ രൂപെയുള്ളു കാർഡിന് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബജാജിൻ്റെ കാർഡെടുക്കാം ബജാജിൻ്റെ കാർഡ് എടുത്തുകഴിഞ്ഞാൽ മുന്നൂറ് രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോൾ വേണമെങ്കിലും എന്തിയ്യാം നമുക്ക് വേറെന്തെങ്കിലും സാധനെടുക്കണെങ്കിലും അതീന്ന് നമുക്കെടുക്കേം ചെയ്യാം ആ എടുക്കാം ആ അപ്പോൾ ആദ്യം നമുക്കൊരു ഓ അതിനും ഓഫറുണ്ട് അതിനുണ്ട് അതിനുമുണ്ട് അതിന് കുക്കറാണ് നമ്മൾ ഓഫർ ചെയ്യണത് ആ അതെ അതെ ഇവിടെ വന്ന് നോക്കിയാൽ മതി ആ ഇവിടെ വന്ന് നോക്കീട്ട് എടുത്തോളൂ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ